ഈ ഞാൻ ഇൻഡോർ പ്ലാൻ്റുകളാണ് കൂടുതലും വച്ചേക്കുന്നത് അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കോളും ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും ഇൻഡോറിൽ നിന്ന് വേറെ വേറെ തണ്ട് വന്നോളും അത് നമ്മൾ ഉത്പാതിപ്പിക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട പിന്നെ മണിപ്ലാൻ്റ് വെള്ളം കൊടുക്കന്നതിനനുസരിച്ച് അതും കുറേ വള്ളി വള്ളിപോലെ ആയിക്കോളും പിന്നെ റോസ റോസ് ഞാൻ വെട്ടി വെട്ടി കൊടുക്കും കേട്ടോ അത് ഞാൻ ബുഷിപോലെയാണ് നിർത്തിയിരിക്കുന്നത് നിറയെ പൂവുണ്ടാവും നമ്മൾ പൂവ് കഴിയുമ്പം അത് വെട്ടിക്കൊടുക്കണം എന്നിട്ട് അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിവച്ചാൽ അത് പിടിക്കും ചിലപ്പോൾ പിടിക്കില്ല ചിലപ്പം പിടിക്കും അങ്ങനെ അതേപോലെ ഡാലിയയൊക്കെ കിഴങ്ങ് ആ പൂവ് കഴിയുമ്പോൾ കിഴങ്ങ് മാറ്റി പറിച്ച് എടുത്തിട്ട് വേറെ ചട്ടിയിലോട്ട് മാറ്റി നടും കേട്ടോ അങ്ങനെ ആണ് ഞാൻ കുറെ കുറെ കുറെ കുറേ ചെടികളാക്കുന്നത് അല്ലാതെ നമ്മൾ അതങ്ങനെത്തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോവാനും ഇതുണ്ട് ഒത്തിരി വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ആണെങ്കിലും നശിച്ച് ചീഞ്ഞു പോവും അപ്പം ഞാൻ എന്തൊരു ചെടിയാണോ അതിനു വേറെ ഒരു ചെടിയുണ്ടാവും ഒരു മദർ പ്ലാൻ്റ് എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് മദർ പ്ലാൻ്റായിട്ടുള്ള കുറച്ച് ചെടികൾ എനിക്കുണ്ട് അതിൽ നിന്നാണ് ഞങ്ങൾ ബേബി പ്ലാൻ്റ് ഉണ്ടാക്കുന്നത് എന്തായാലും അടിയിൽ നിന്നേ ആയാലും എല്ലാത്തിനും